ഹലോ വാട്ടർ അതോറിറ്റിയല്ലേ ഞാൻ നിഷയാണ് സംസാരിക്കുന്നത് എനിക്ക് ഉടിപ്പിന പള്ളിയിലെ ജാസിൻ്റെ ഒരു കോഡിനേറ്ററാണേ ഞങ്ങൾ ഇവിടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം അടുത്ത ഇരുപത്തഞ്ചാം തീയ്യതി അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയ്യതി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് ഒരു ടാങ്ക് വെള്ളം വേണമായിരുന്നു എന്നു വെച്ചാലത് ഞങ്ങൾ ആ ഞങ്ങൾ ഏകദേശം അഞ്ഞൂറ് പേര് സംബന്ധിക്കുന്ന ഒരു പരിപാടിയാണത് ആ പരിപാടിയിൽ ഞങ്ങളവർക്ക് ഭക്ഷണം ഉച്ച ഭക്ഷണം കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അപ്പം ആ അത് ഞങ്ങൾ വെള്ളം തിളപ്പിച്ച് ഇതാക്കി കൊടുക്കാനായിട്ട് ഞങ്ങളാഗ്രഹിക്കുന്നത് അതിനായിട്ട് ഞങ്ങൾക്ക് ഒരു ടാങ്ക് വെള്ളം നമ്മുടെ കുടിപ്പിന പള്ളിയുടെ ചാസിൻ്റെ ഇതിലേക്ക് നമുക്ക് അടിച്ച് തരണം അതിന് എത്ര രൂപയാകും എന്ന് ഒന്നു ഞങ്ങളോട് പറഞ്ഞു തരണം പിന്നെ അതിൻ്റെ വണ്ടിക്ക് വണ്ടിയുടെ ചാർജ്ജ് അതിവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിൻ്റെ ഇത് എപ്പോൾ എത്തിക്കും എന്നൊക്കെ ഒന്ന് വിശദീകരിച്ച് തരണം ഞങ്ങൾക്ക് അത് വാട്ടർ അതോറിറ്റിയിള്ള ലെ സാറിൻറ്റടുക്കലൊന്ന് ചോദിച്ചിട്ട് ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് വിശദീകരിച്ച് തരണമെന്നും താല്പര്യപ്പെടുന്നു കേട്ടോ